ഹലോ ഹുണ്ടായിൻ്റെ ഷോറൂമ് ആണ് പറഞ്ഞോളൂ ആ ഓക്കേ മേഡം പറഞ്ഞോളൂ മേഡത്തിൻ്റെ ബഡ്ജറ്റ് എങ്ങനെയാണ് സ്റ്റാട്ടിങ് നമുക്ക് ഫൈവ് പോയിൻറ്റ് ഫൈവ് തൊട്ടാണ് സ്റ്റാട്ട് ചെയ്യുന്നത് ഇയോണാണ് വരുന്നത് അഞ്ച് ലക്ഷത്തി അഞ്ചര ലക്ഷം രൂപ തൊട്ടാണ് സ്റ്റാട്ട് ചെയ്യുന്നത് വേറെ നമുക്ക് ഐ ടെൻ വരുന്നുണ്ട് ഐ ട്വൻറ്റി വരുന്നുണ്ട് പിന്നെ ക്രെറ്റ വരുന്നുണ്ട് വെന്യു അല്ലല്ല മാഡം ഇതൊക്കെ എക്സ് യൂ വി റേറ്റിന് എക്സ് യൂ വി വെഹിക്കിൾസിനൊക്കെ വെ റേറ്റ് വ്യത്യാസം വരുന്നുണ്ട് മേഡത്തിൻ്റെ ഏകദേശമൊരു ബഡ്ജറ്റ് പറയുവാണേൽ അതിനനുസരിച്ചുള്ള വണ്ടി ഞാൻ പറയാം ആ അത് എങ്ങനെയാണ് മേഡം ഇ എം ഐലെടുക്കാനാണോ മേഡം എത്ര മാസത്തേക്ക് ഇ എം ഐ നോക്കുന്നുണ്ട് മേഡം നമ്മൾ സെവൻ ഇയേഴ്സ് വരെ ചെയ്തു തരുന്നുണ്ട് ഐ അതുമതിയാവും അല്ലെ നമുക്ക് ഇപ്പോൾ ട്വൻറ്റി മോഡലാ ഒരു പ്രീമിയം കാറിലേക്കൊക്കെ വരുവാണെങ്കിൽ നമുക്ക് എട്ട് ലക്ഷത്തി എഴുപത്തി രണ്ടായിരം രൂപയാണ് വണ്ടിക്ക് വരുന്നത് അപ്പോൾ നമുക്ക് ഇപ്പോൾ ഓഫർ വന്നേക്കുന്നത് എന്താന്നു വെച്ചാൽ ഓണത്തിൻ്റെ ഓഫറിൽ നമുക്ക് നയൻറ്റി എബോവ് അതിന് മേളിലേക്ക് നമുക്ക് ലോണു കൊടുക്കാം അപ്പോൾ മാഡം അപ്പോൾ സ്റ്റാർട്ടിങ് ഒരു തൊണ്ണൂറായിരം രൂപ തരുവാണെങ്കിൽ നമുക്ക് വൺ മ ഒരു ഒരു മാസത്തിനുള്ളിൽ പുതിയൊരു കാറ് തരാൻ പറ്റും ബാക്കി ഫുള്ള് ലോണാക്കിത്തരാം ആ ഫസ്റ്റ് തൊണ്ണൂറായിരം പേയ്മെന്റ്റ് ചെയ്യുവാണെങ്കിൽ ബാക്കി നമുക്ക് ലോണിടാം ലോണാക്കിത്തരും ഞങ്ങൾ തന്നെ മാഡം വേറൊന്നും മാസം നമുക്ക് ഒരു എണ്ണായിരത്തി സംതിങ് ഒക്കെ വെച്ച് അടക്കേണ്ടി വരും

ഇല്ല നമ്മൾ ഹ്യൂണ്ടായിൻ്റെ മാത്രമേ ചെയ്യുന്നുള്ളു നമ്മൾ വേറെ പിന്നെ എന്താ പറയുക എക്സ് യൂ വിലേക്കൊക്കെ നോക്കുവാണെങ്കിൽ എമൗണ്ട് വ്യത്യാസം വരും മേഡം എക്സ് യൂ വിയൊക്കെ ആകുമ്പോൾ ഹ്യുണ്ടായിൻ്റെ ഇപ്പോൾ നമുക്ക് പ്രീമിയം പ്രോഡക്ട് വരുന്നതിപ്പോൾ എന്താ പറയുക ക്രെറ്റ അടിപൊളി വണ്ടിയാണ് മാഡം പക്ഷേ ക്രെറ്റക്ക് നമുക്ക് ഇപ്പോൾ എന്താ പറയുക മാഡത്തിൻ്റെ ബഡ്ജറ്റ് വെച്ചു നോക്കുമ്പോൾ പറ്റില്ല പതിനാല് ലക്ഷമാണ് പതിനാല് ലക്ഷമാണ് അതിൻ്റെ ലോ ഓപ്ഷൻ വണ്ടിക്ക് വരുന്നത് പിന്നെ ഫുള്ള് ഓപ്ഷനൊക്കെ ആകുമ്പോൾ ഒരു ഇരുപത്തിനാല് ആ ഒരു ബഡ്ജറ്റ് ഒക്കെ വരും

ഓക്കെ മേഡം ഷോ റൂമിലേക്ക് വരുന്നുണ്ടോ ഉടനെയെങ്ങാനും ഓക്കെ മേഡം എന്നാൽ മേഡം വരുന്നതിന് മുമ്പൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി ആയിക്കോട്ടെ താങ്ക് യൂ മേഡം